നമ്മുടെ കൊച്ചുകേരളം വിനോദ സഞ്ചാര മേഖലകളിൽ വളരെയേറെ പ്രാധാന്യം കൊടുക്കുന്നൊരു സ്ഥലമാണീ കേരളം ഒട്ടനവധി വിദേശ സഞ്ചാരികളെ ആകർഷിക്കത്തക്ക വിധം വളരെ മനോഹരമായ ഒരു പ്രദേശമാണ് നമ്മുടെ കേരളം ഇതിൽ വിനോദ സഞ്ചാരികൾക്കൊപ്പം വെളിയിൽ നിന്നും വെളിയിലുള്ള രാജ്യങ്ങളിൽനിന്നൊക്കെ ആൾക്കാര് സന്ദർശനത്തിന് വരികയാണെങ്കിൽ നമുക്കവരോട് ഇങ്ക്ളീഷ് ഇങ്ക്ളീഷ് ഭാഷയിൽ സംസാരിച്ച് അവരോട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെ അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളും കാര്യങ്ങളും മറ്റും നമുക്ക് കൊടുക്കാൻ സഹായിക്കും ഇപ്പോൾ ഒട്ടനവധി വിദേശ സഞ്ചാരികൾ നമ്മുടെ നാട്ടിൽ സന്ദർശനത്തിന് വരുന്നുണ്ട് അവരൊക്കെ ഹാപ്പി ആയിട്ടാണ് മടങ്ങുന്നത് അവരെ നിയന്ത്രിക്കാനും അവരുടെ കൂടെ നടക്കാനുമൊക്കെ ഇപ്പോള് ഇഷ്ടമ്പോലെ ഗൈഡുകളൊക്കെ ഉണ്ട് അവർക്ക് പിന്നേ മനസ്സിലാക്കുന്ന ഭാഷയിൽ ട്യൂറിസ്റ്റുകളെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി ഓരോ സ്ഥലത്തൊക്കെക്കൊണ്ട് കാണിക്കുന്നുണ്ട് അപ്പോള് വിദേശികൾക്ക് ഏറ്റവും കൂടുതല് മനസ്സിലാകുന്ന ഭാഷ ഇങ്ക്ളീഷാണ് ഇങ്ക്ളീഷ് ഭാഷയിൽ സംസാരിക്കുമ്പോഴാണവർക്ക് കൂടുതൽ മനസ്സിലാക്കാനും അത് കൂടുതൽ കാര്യങ്ങൾ അറിയുവാനും പറ്റുന്നത് ഇങ്ക്ളീഷ് ഭാഷയില് എല്ലാ രാജ്യങ്ങൾക്കും അല്ലെങ്കില് എല്ലാ പ്രദേശത്തും എല്ലാവർക്കുമറിയുന്നൊരു ഭാഷയാണ് ഇങ്ക്ളീഷ് ഇങ്ക്ളീഷിലൂടെ സംസാരിക്കുമ്പോൾ മാത്രമേ നമുക്ക് മറ്റ് വിദേശ രാജികൾ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ടൂറിസ്റ്റുകളെയെക്കെ മനസ്സിലാക്കാനും അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനും ഇപ്പോളൊരൂ വെള്ളച്ചാട്ടമാണെങ്കിൽ അങ്ങോട്ട് പോകരുതെന്നുള്ള നിർദ്ദേശങ്ങളും ഒക്കെ കൊടുക്കാനും പിന്നേ ഒരു സഹായങ്ങളൊക്കെ ചെയ്യുവാനും നമുക്ക് സാധിക്കുകയുള്ളു അവരെ വളരെയേറെ സഹായിക്കുകയും ഓരോ നിർദ്ദേശങ്ങളൊക്ക കൊടുക്കുകയും ചെയ്യുമ്പോഴാണ് പിന്നെയും പിന്നെയും ടൂറിസ്റ്റുകളൊക്കെ വരികയും നമ്മുടെ നാടിനെ നമുക്ക് നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാനും കൂടുതൽ വിനോദസഞ്ചാരികള് വന്ന് ഈ കേരളത്തിലെ കാഴ്ച്ചകളൊക്കെക്കണ്ട് ദൈവത്തിന്റെ സ്വന്തം നാടെന്നറിയപ്പെടുന്ന നമ്മുടെ കേരളത്തെ മറ്റ് കൂടുതൽ സ്ഥലങ്ങളിലോട്ടൊക്കെ മനസ്സിലാക്കാനും അതുവഴി വിനോദ സഞ്ചാരമേഖലയിൽ ആളുകള് കൂടുവാനും പുതിയ പുതിയ ഗൈഡുകളൊക്കെ വന്ന് സഹായിക്കണം അപ്പോഴെല്ലാവർക്കും ഒരുവിധമറിയാവുന്ന ഭാഷയാണ് ഇങ്ക്ലീഷ് ഇങ്ക്ളീഷ് സംസാരിക്കുന്നതിലൂടെ നമുക്ക് മറ്റുള്ള മറ്റുള്ള ആൾക്കാ രെ മനസ്സിലാക്കാനും അവരുമായിട്ട് കമ്യൂണിക്കേറ്റ് ചെയ്യാനും സാധിക്കും അപ്പോൾ നമ്മള് അതാണ് വേണ്ടത്